കാലാവസ്ഥകളിൽ ഞങ്ങൾ ഓരോരോ കാലാവസ്ഥകൾ ചേയ്ഞ്ച് ചെയ്യുമ്പോൾ അതിന് അനുസരിച്ച് ചെടികളെ സംരക്ഷിക്കാറുണ്ട് ഇപ്പോൾ വർഷ കാലം വരുമ്പോൾ വളരെ കാറ്റും വെള്ളം കെട്ടി ചെടികൾ ചീഞ്ഞ് പോവാണ്ടിരിക്കാനുമൊക്കെ ആയിട്ട് വളരെ അധികം മുൻ കരുതലുകൾ എടുക്കാറുണ്ട് വല വിരിച്ച് ചെടികൾക്ക് ഞാൺ കൊടുത്ത് കെട്ടി നിർത്താറുണ്ട് ഇപ്പോൾ ചട്ടികളിലാണെങ്കിൽ ചട്ടികളിൽ നിന്ന് കീഴ്പോട്ടേക്ക് വെള്ളം പോവാനായിട്ട് ചീഞ്ഞ് പോവാതിരിക്കാൻ സൂക്ഷിക്കാറുണ്ട് അതേമാതിരി വേനൽ കാലത്താണെങ്കിൽ ഞങ്ങൾ ചകിരി അങ്ങനെ ഉള്ള മുട്ടത്തോട് ഉള്ളി തോട് അതൊക്കെ ഇട്ടിട്ട് വെള്ളം നിറച്ചും കുപ്പികളിൽ വെള്ളം ചെടി ചട്ടിയിൽ ഒരു സൈഡിൽ കുപ്പി വച്ചിട്ട് ഇങ്ങനെ ഓർഡറ് അതിന് ഓരോ ദ്വാരങ്ങൾ ഇട്ടിട്ട് വെള്ളം ഏത് നേരം ചെടിയുടെ ചുവട്ടിൽ വീഴാനായിട്ടും ചെടി നനച്ചും അങ്ങനെ ഉള്ള മുൻകരുതലുകൾ ചെയ്യാറുണ്ട് പിന്ന മഞ്ഞ് കാലത്ത് ചെടികൾക്ക് പൂക്കളും അങ്ങനെ ഉള്ള നല്ല ഉന്മേഷത്തോടു കൂടി വരാനായിട്ട് വളം ഇട്ടും നനച്ചും വളരെ അധികം ഞങ്ങൾ ശുശ്രൂഷിച്ച് മുന്നോട്ടേക്ക് കൊണ്ട് പോകാറുണ്ട്